മലയാളഭാഷ എന്നത് മലയാളികളുടെ ഭാഷ മാത്രമല്ല അത് അവർ ചെറുപ്പത്തിലേ കൈവരിക്കുന്ന സംസ്കാരം കൂടിയാണ് ഇപ്പോൾ മലയാളം അല്ലെങ്കിൽ സാ നമ്മുടെ സംസ്ഥാ സംസഥാനത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ മലയാള ഭാഷ വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ചെറിയ നമ്മുടെ വീട്ടിലുള്ള പ്രസവിച്ച് വീണ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്നും പറയുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്നും കാണിക്കുന്ന വീടുകാരുടെ സംസ്കാരം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾ നമ്മുടെ വായിൽ നിന്ന് എന്താണോ വരുന്നത് അതു തന്നെയാണ് അവരുടെ അവരും പറഞ്ഞുകൊണ്ട് പഠിപ്പി പഠിച്ചുകൊണ്ട് വരുന്നത് അത്കൊണ്ട് തന്നെ മലയാള ഭാഷ അവരുടെ കൈകളിൽ തന്നെ ഉണ്ടാക്കണം ഇപ്പോൾ ഭാഷയില് ഭാഷ എന്നത് ഒരു സംസ്കാരം കൂടിയായതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിപ്പോൾ പുറത്തുപോയിട്ട് ഒരാളുടെ സ്വഭാവവും അതുപോലെ അവരുടെ പെരുമാറ്റവും അവരുടെ വായിൽ നിന്ന് എന്താണോ വരുന്നത് അവരുടെ വായിൽ നിന്ന് ഭാഷ അതൊക്കെ മനസിലാക്കിയിട്ടായിരിക്കും ഒരാളുടെ സംസ്കാരം എങ്ങനെയാണ് നമ്മള്